ഞാൻ ഒരു പത്തു കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പോൾ എനിക്കിനി അടുത്ത എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിലൊരു ഒരു ഇതില്ലാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ഒന്ന് ചോദിക്കുവാൻ വേണ്ടി വിളിച്ചതാണ് എന്തായിരിക്കും രണ്ട് എനിക്ക് ഐ റ്റി ഫീൽഡാണ് കൂടുതൽ താല്പര്യം അപ്പോൾ എനിക്കീ പ്ലസ് വൺ പ്ലസ് റ്റു പഠിക്കാണ്ട് നേരെ പോളിടെക്നിക്ക് പോയി പഠിച്ചിട്ട് അവിടെനിന്ന് ഒരു കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോഴ്സസ് ചെയ്തിട്ട് കയറാൻ പറ്റുമോ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഈ ഡിപ്ലോമ എടുക്കുന്നതായിരിക്കുമോ അതോ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തിട്ട് എൻ്റെ ഫീൾഡിലോട്ടേക്ക് ഇറങ്ങണതായിരിക്കുമോ കുറച്ചും കൂടി നല്ലത് എന്താണ് അഭിപ്രായം

ആ ഓക്കെ ഇപ്പോഴാണൊരു ഐഡിയ കിട്ടിയത് എന്തായാലും വളരെയധികം നന്ദി ഓ തീർച്ചയായും തീർച്ചയായും ഞാനെന്തായാലും പ്ലസ് റ്റു ഹയർ സെക്കൻഡറി പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത് ആ ആ ആതെ ആ ഓക്കെ എനിവേ താങ്ക് യു